ഞാൻ ഇടുക്കി സ്ഥലത്താണുള്ളത് അപ്പം എൻ്റെ അവിടുത്തെ ഇതിൽ എനിക്കിപ്പം നിലവിലെൻ്റെ വിദ്യാഭ്യാസ രീതിയിൽ എനിക്ക് സ്വാധീനിച്ച ഒരു കാര്യം പ്രത്യേകിച്ച് അങ്കണവാടിയില് എന്താണ് ആഹാരത്തിൻ്റെ ഇത് നല്ല ക്വാളിറ്റി ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബുക്സും അങ്ങനെയുള്ള കാര്യങ്ങള് എനിക്ക് തോന്നുന്നു അങ്കണവാടിയില് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് നല്ല രീതി ഇതായിട്ട് തോന്നുന്നുണ്ട് കുറച്ചും കൂടെ ആശ വർക്കേഴ്സ് അങ്ങനെയുള്ള ആൾക്കാര് മെച്ചപ്പെടുത്തിയെന്ന് എനിക്ക് ഫീല് ചെയ്തിട്ടുണ്ട് അങ്കണവാടിയില് അതായത് പിള്ളേരെ പഠിപ്പിക്കാനുള്ള ചാർട്ട്സും അങ്ങനെയുള്ള ഒരുപാട് മീൻസ് ബുക്സ് കാര്യങ്ങള് അങ്ങനെയൊക്കെ അവിടുത്തെ ടീച്ചർമാർക്ക് അങ്കണവാടി ടീച്ചേഴ്സിന് കൊടുത്ത മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട് ഫുഡാണെങ്കിലും അവിടുത്തെ പിള്ളേർക്കിപ്പം കഞ്ഞിയല്ല നേരത്തെയൊക്കെ കഞ്ഞി മാത്രമായിരുന്നുവെന്നാണ് ഒരു ഇത് ഇപ്പോള് കഞ്ഞിയല്ല അതിൻ്റെ കൂടെ എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരിതും കൂടെ അവര് അറേഞ്ച്മെൻറ് ചെയ്യുന്നുണ്ട് അതെനിക്ക് നല്ല രീതിയിലൊരു അതെനിക്ക് തോന്നുന്നു റീസൻറ്ലി ഒരു ഒരു വർഷമായിട്ടാണെന്ന് തോന്നുന്നു ഈയൊരു മാറ്റം വന്നത് നല്ലയൊരു മാറ്റമാണ് രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ് ഇതില് തന്നെ അതായത് വിദ്യാഭ്യാസത്തിൻ്റെ ഇതില് സ്വാധീനിച്ചിട്ടുള്ള ഒരു സർക്കാർ പദ്ധതികളെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവരുടെ ഡ്രസ്സ് കോഡ്സ് എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ എന്തും വേണമെങ്കില് ഇടാമെന്നായിരുന്നു ഇപ്പോള് അങ്ങനെയല്ല അവർക്കൊരു യൂണിഫോം ഉണ്ട് ബാഗ് അല്ലെങ്കില് പുസ്തകം അങ്ങനെയുള്ള സംഭവങ്ങൾ അവർക്കുമുണ്ട് സോ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ന്യൂ ജനറേഷനിലെ ന്യൂ ജനറേഷനിലെ പിള്ളേരെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മാത്രമല്ല നേരത്തെയൊക്കെ ഈ പബ്ലിക് ഹോളിഡേയ്സ് മാത്രമല്ലായിരുന്നു കുട്ടികൾക്ക് ലീവ് കൊടുത്തുകൊണ്ടിരുന്നത് ഇഷ്ടം പോലെ അവർക്ക് ലീവ് കൊടുക്കുമായിരുന്നു അത് മാത്രമല്ല എട്ട് മണിക്കൂര് അവര് ഇപ്പോള് രാവിലെയൊരു എട്ട് മണിക്കാണ് അല്ലെങ്കില് എട്ടരയ്ക്ക് സ്കൂള് തുടങ്ങിക്കഴിഞ്ഞാല് വൈകുന്നേരം ഒരു മൂന്നര നാല് മണി വരെയുണ്ട് അപ്പോള് അവരുടെ ബ്രേക്ക് ടൈം നേരത്തെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ടു അവർ വരെ അവർക്ക് ബ്രേക്ക് ടൈമായിരുന്നു പണ്ടുകാലത്ത് പക്ഷേ ഇപ്പോള് അത് വളരെ രീതിയിൽ അത് മാറ്റി അത് ബ്രേക്ക് ടൈം എന്നുപറയുന്നത് കറക്റ്റൊരു തേർട്ടി മിനിറ്റ്സിൻ്റെ ബ്രേക്കാണ് കൊടുക്കുന്നത് ഗവൺമെൻറ് ഇതില് അതൊരു വളരെ മാറ്റമാണ് കാരണം ആ ഒരു ഹാഫ് ഹവര് അവർക്ക് ബ്രേക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള ടൈം ഫുൾ അവരുടെ സബ്ജെക്സ് അവർക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ഇത് വന്നിരിക്കുന്നത് അതെനിക്ക് നല്ല രീതിയില് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ പഠിച്ച സമയത്തൊക്കെയെന്ന് പറയുമ്പോള് ബ്രേക്ക് ടൈമെന്ന് പറയുമ്പോള് വൺ അവറായിരുന്നു വൺ അവർ ബ്രേക്ക് ടൈം ഞങ്ങള്ക്കുണ്ടായിരുന്നു ആ സമയത്ത് അതായത് ആ നേരത്തെകാലത്ത് ടു തൗസൻഡ് എയ്റ്റിലൊക്കെ പഠിച്ചപ്പോള് ആ സമയത്ത് പക്ഷെ ഇപ്പോഴെന്ന് പറയുന്ന ബ്രേക്ക് ടൈം റെഡ്യൂസ് ചെയ്തതുകൊണ്ട് തന്നെ സബ്ജെക്സിനെ നമുക്ക് സ്കൂളില് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള സബ്ജെക്ട് അല്ലെങ്കില് ഈവൻ പി ടി അങ്ങനെയുള്ള സബ്ജെക്റ്റ് എല്ലാം മുന്നോട്ട് കൊണ്ടുവന്ന് ആ ഒരു ഹാഫ് ടൈമും കൂടെ ഹാഫ് ഹവർ ടൈമും കൂടെ അവര് ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു എഡൂക്കേഷനിലെ നല്ലയൊരു വെല്ലുവിളിച്ച ഒരിതാണ് പക്ഷെ പിള്ളേർക്ക് അതൊരു ചെറിയൊരു ബുദ്ധമുട്ടുണ്ടെങ്കിൽപ്പോലും അതൊരു സിക്സ് മന്ത്സ് ഒരു ഡേ അത് അങ്ങനെ യൂസായിട്ട് പോവുകയാണെങ്കിൽ അവർക്കും അതൊരു നല്ലയൊരു ഇതായിട്ട് പാഠമായിട്ട് പോകുമെന്നാണ് എൻ്റെയൊരു നിലപാട്